എനിക്ക് അന്നും ഇന്നും ഇഷ്ടം സാധാരണ അതായത് സാരി സൽവാർ അങ്ങനെ ഉള്ളതൊക്കെ ധരിക്കാനാണ് അന്നും ഇന്നും ഇഷ്ടം ഇപ്പോൾ സിനിമയിൽ ആണെങ്കിലും അങ്ങനെ അങ്ങനത്തെ അതായത് പണ്ടത്തെ സിനിമയിൽ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കൂടുതലും പണ്ടത്തെ സിനിമ ആണ് ഇപ്പോൾ ഒക്കെ സിനിമ കാണൽ വളരെ കുറവാണ് സീരിയൽ ഒക്കെ ആണ് സീരിയൽ ആണെങ്കിൽ നമ്മൾ കൂടുതലും ഡ്രസിങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഥാപാത്രത്തിനേക്കാളും ഡ്രസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും അതായത് ദാവണി പട്ടുപാവാട ചുരിദാർ അങ്ങനെയുള്ളതൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കാണാനും എനിക്ക് ഇടാനുമൊക്കെ എനിക്കതാണ് ഇഷ്ടം സിനിമയിലൊക്കെ കൂടുതലുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവന കാവ്യ മാധവൻ നവ്യ നായർ അങ്ങനെ ഉള്ളവരൊക്കെ ഇടുന്ന വസ്ത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതായത് അവർ നല്ല ഒതുക്കമുള്ള ശരീരത്തിന് ഒതുങ്ങുന്ന പിന്നെ ഇഷ്ടമാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇടുന്ന പോലത്തെ ജീൻസും ടോപ്പും ഒക്കെ കാണാനും അവർ ചില കുട്ടികളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്യൂട്ട് ആണ് കാണാൻ അത് നമ്മുടെ ശരീരത്തിലിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നൂ എന്നുള്ള ഒരു ഇതിലുള്ള അങ്ങനത്തെ കുട്ടികളൊക്കെ ഇടുന്നത് കാണാൻ ആണ് എനിക്കിഷ്ടം പിന്നെ ഭയങ്കര വൃത്തികേടായിട്ട് ഇടുന്നത് കാണാൻ എനിക്കൊട്ടും താല്പര്യമില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെയൊരു ഇതെന്ന് പറയുവാണെങ്കിൽ എനിക്കങ്ങനത്തെ വസ്ത്രധാരണങ്ങളോടാണ് താല്പര്യം